ചേട്ടാ ഒരുപാട് ദൂരമായല്ലോ നമ്മളിങ്ങനെ ചുറ്റി കറങ്ങാൻ തുടങ്ങിയിട്ട് ഇതുവരേക്കും ഈ റോഡിൻ്റെ പണി ഇതുവരേക്കും തീരാത്തത് കൊണ്ട് വളരെ ഒരു ദുർഘടം പിടിച്ച വഴിയിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിനിയും കൂടുതൽ മുന്നോട്ട് പോയി കഴിയുവെങ്കിൽ നമ്മൾ സമയം ഒരുപാടൊരുപാട് നഷ്ടപെടുന്നുള്ളൊരു കാര്യം ഇനി കറക്റ്റ് എത്ര സമയത്ത് നമ്മളിനി അവിടെ എത്തി ചേരുമെന്നുള്ള കാര്യം ഗൂഗിൾ മാപ്പിൽ കൂടി ഞാൻ നോക്കിയപ്പോളെനിക്ക് മനസ്സിലായത് ഇനിയും മൂന്ന് മണിക്കൂറെന്നാണ് പക്ഷേ സാധാരണ രീതീയിൽ ആ റോഡ് പൊളിച്ച് പണി നടന്നോണ്ടിരിക്കുന്ന റോഡിൽ കൂടി നേരെ പോയി കഴിയുമെങ്കിൽ ഒരു രണ്ടരമണിക്കൂറിനകത്ത് വച്ചിട്ട് എത്താനുള്ള ദൂരം മാത്രമേ അവിടെ ഉള്ളു പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടീട്ട് പോകാൻ വേണ്ടീട്ടാണ് ഞാൻ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചത് ഇപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്തിൽ നിന്നും ഒരു അരമണിക്കൂറ് താമസിച്ചേ അവിടെ എത്താൻ വേണ്ടി കഴിയുകയുള്ളു അമിത വേഗതയിൽ എനിക്ക് പോകാനും കഴിയില്ല അപ്പോൾ വളരെ ഒരു വിഷമത വിഷമത ഉള്ള അവസ്ഥയിലാണ് ഞാനിപ്പം മുന്നോട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് നിർമ്മാണം കാരണം ഈ പുതിയ റൂട്ട് എടുക്കേണ്ടി വന്നതിൽ എനിക്കിപ്പോൾ വളരെ വളരെ വിഷമമുണ്ട് കാര്യംന്ന് വച്ച് കഴിഞ്ഞാൽ സാധാരണ രീതീൽ ഈ മഴയായത് കൊണ്ടാണ് ഞാൻ ബൈക്ക് എടുക്കാത്തത് സാധാരണ രീതീൽ ഞാൻ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലയെങ്കിൽ കാറ് പോകാമായിരുന്നു പക്ഷേ ഇത്രയും യാത്ര ക്ഷീണം അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയാണ് ഡ്രൈവ് ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഒഴിവാക്കി ഞാൻ ഓട്ടോ വിളിച്ച് വന്നത് പക്ഷേ ഇപ്പം ഈ റോഡ് പൊളിച്ചിട്ടേക്കുന്ന ഈ ഒരവസ്ഥ കാരണം ഈ കറക്റ്റ് സമയത്തിന് നിശ്ചിത സമയത്തെനിക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്